ഇന്ത്യ എന്ന രാജ്യത്ത് ഒരുപാട് മതങ്ങളുണ്ട് പക്ഷെ ഒരുപാട് മതങ്ങളുണ്ട് പക്ഷെ മനുഷ്യനെല്ലാം ഒന്നാണ് പല ആള്ക്കാരും പലപല മതങ്ങളില് വിശ്വസിക്കുന്നു പല ആചാരങ്ങളാണ് പല പലപല മതങ്ങളിലും പല ദൈവങ്ങളിലും വിശ്വസിക്കും പക്ഷെ ഒരു ആപത്ത് വരുമ്പോഴോ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോഴോ പക്ഷെ ഈ ജനങ്ങളെല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ നിൽക്കുന്നത് നമുക്ക് ഈ ഇന്ത്യ എന്ന രാജ്യത്ത് മാത്രമേ കാണാന് കഴിയൂ ഇപ്പോൾ കേരളത്തിലായാലും കേരളത്തിൽ ഇപ്പോൾ വയനാട് ഉരുള്പൊട്ടി പക്ഷെ അവിടെ ജാതിയും മതവും വര്ഗ്ഗവും വര്ണ്ണവും ഒന്നും നോക്കാതെ എല്ലാ ജനങ്ങളും ഒരുപോലെയാണ് അവിടെ രഷാപ്രവര്ത്തനം നടത്തുന്നത് അവിടെ ഹിന്ദുവെന്നോ മുസ്ലീമെന്നോ ക്രിസ്ത്യനെന്നോ ഒന്നും ഒരു വേര്തിരിവും ആര്ക്കും ഇല്ല അപ്പോള് ഈ പല മതങ്ങള് ഉണ്ടെങ്കിലും മനുഷ്യനെല്ലാം ഒരേ മനസ്സോടെ ഒരേ ചിന്തയിലും ഒക്കെയാണ് ഈ കേരളത്തിൽ ഐ കേരളത്തില് എന്നല്ല ഈ ഇന്ത്യന് ഇന്ത്യയില് അങ്ങനെയാണ് എല്ലാവരും ജീവിക്കുന്നത് ഓരോ മതത്തിനും അതാത് പങ്കുകളുണ്ട് ഈ ഇന്ത്യയിൽ ഓരോ മതത്തിന് അതിന്റേതായിട്ടുള്ള കാര്യങ്ങളക്കെ ഉണ്ട് അപ്പോൾ ഓരോ മതക്കാരും അവരുടേതായ കാര്യങ്ങളക്കെ ചെയ്യുന്നുമുണ്ട് മനുഷ്യനും ചെയ്യുന്നുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്തു എന്നുപറഞ്ഞാലും ഈ സമൂഹം എല്ലാം ഒരൊറ്റ കെട്ടായിട്ട് നിന്നാണ് ഒരു ആപത്ത് വരുമ്പോഴോ മറ്റേത് കാര്യങ്ങളായാലും മനുഷ്യരെല്ലാം ഒന്നിച്ച് ഒരുമയോടെ കഴിയുന്നതാണ് നാം കാണാന് സാധിക്കുന്നത് അതില് ഞാൻ ഒരു ഇന്ത്യയെ പൗര ആയതില് വളരെയധികം സന്തോഷിക്കുന്നു എടുത്തുപറയേണ്ട കാര്യം ഇന്ത്യയില് കേരളമെന്ന സംസ്ഥാനത്തില് ഞാന് ജനിച്ചുവളര്ന്നു എന്നതില് ഞാന് അഭിമാനിക്കുന്നു അവിടെ എല്ലാ മനുഷ്യരും ഒരേ മനസ്സോടും ഒക്കെയാണ് ഓരോ കാര്യങ്ങളില് ഒരു ആപത്ത് വരുകയോ ഒരു ആക്സിസിഡൻറ്റ് ഉണ്ടാവുകയോ എന്തുവന്നാലും അത് ഹ മനുഷ്യനെന്ന് ആരും മതവും ജാതിയും ഒന്നും നോക്കാതെ ഒരേ മനസ്സോടെ വന്ന് അതില് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു ഒരാള്ക്ക് ഒരു ആപത്ത് വരുമ്പോഴോ ഒരു സഹായം വേണ്ടിവന്നപ്പോഴോ ഒക്കെ മനുഷ്യരെല്ലാം ഒരേ മനസ്സോടെ ചിന്തിക്കുന്നവരും ആണ് അങ്ങനെ ഒക്കെയാണ് ഇന്ത്യ എന്ന രാജ്യത്തെ വ്യത്യസ്തമായ ഒരു രാജ്യമായി മറ്റു രാജ്യക്കാര് കാണുന്നത് എന്നുവെച്ചാല് എല്ലാ മതക്കാരുമുണ്ട് ആ രാജ്യത്തെ അതാണ് വ്യത്യസ്തമാക്കുന്നത്